എനിക്ക് പ്രത്യേക ഗുരുക്കളൊന്നുമില്ല എന്നാലും എനിക്ക് എൻ്റെ കൂടെ പഠിച്ച ജോജോയെന്നു പറയുന്ന ഒരു വ്യക്തിയുണ്ട് വളരെ സ്വീറ്റ് സൗണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടു കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരുന്നു പോവും ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത് ഭക്തി സാന്ദ്രമായ നല്ല ഗാനങ്ങൾ പഠിക്കുന്ന ഗുരു അദ്ദേഹത്തിൻ്റെ പാട്ടു കേൾക്കാൻ വളരെ രസമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നാണ് സാധാരണ ഞങ്ങൾ പാട്ടു പഠിക്കാറ് പാട്ട് തന്നെ പാടാറുള്ളത് അദ്ദേഹം നമ്മളെ പാട്ടു പഠിപ്പിക്കും എങ്കിലും ഞാൻ അദ്ദേഹം പാടുമ്പോൾ ഇങ്ങനെ കേട്ടിരിക്കാറുണ്ട് അവരുടെ കൂടെ കേട്ടിരുന്ന് കേൾക്കും അത് ഞാൻ പാടി നോക്കും കൂടുതലും പള്ളികളിലാണ് ഇങ്ങനെയൊക്കെ പുള്ളി പാടാറുള്ളത് അങ്ങനെ ഇപ്പോൾ അല്ലാതെ പുള്ളി പാട്ടു പഠിപ്പിക്കുമ്പം നമ്മളൊക്കെ അങ്ങ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടും അന്ന്

കൂടുതലായിട്ട് പഠിപ്പിച്ചു തരും പുള്ളിയെക്കുറിച്ച് പുള്ളിക്ക് നല്ല കഴിവുണ്ട് നല്ല സ്വീറ്റ്സ് സോങ്ങ് സൗണ്ടാണ് സൗണ്ടാണെന്നെ പാട്ട് നമ്മൾ വലിയ അത്ര ഇതൊന്നുമല്ല എങ്കിൽ കൂടിയും നല്ല വ്യക്തിയായിരുന്നു